ന്യൂ ഡേ റെസ്റ്റോറൻറ്റല്ലേ ഞാനവിടന്നേ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സന്ദീപ് അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ജെസ്റ്റൊന്ന് ഓർഡർ ചെയ്ത് വെച്ചതാ അപ്പോൾ എനിക്കത് ഇപ്പോൾ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ അധികമാൾക്കാരില്ല ഞാൻ രണ്ടുമൂന്ന് ചപ്പാത്തീം പിന്നെ മിറാൻറ്റ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നു ഒഴിവാക്കാൻ വേണ്ടീട്ടായിരുന്നു ആ അതെ അതെ അതെ അപ്പോൾ അത് ഞാൻ ജെസ്റ്റൊന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കേറീട്ട് ഞാൻ ജെസ്റ്റൊന്ന് അതെല്ലാം കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കാർട്ട് ചെയ്ത് വെക്കൂല്ലേ അതേപോലെ ആ നിങ്ങളെ ആപ്ലിക്കേഷനില്ലേ അത് തന്നെ അപ്പോൾ അതൊന്നെനിക്ക് ഒഴിവാക്കാൻ വേണ്ടീട്ടായിരുന്നു എനിക്കിപ്പോൾ ആവിശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ മാത്രമേയുള്ളൂ ഇപ്പോൾ അതൊന്ന് നിങ്ങൾ എത്തിച്ചുതരുകയാണെങ്കിൽ നല്ലതായിരിക്കും ആ ഓക്കെ ഓക്കെ അത് മാത്രം മതി ബാക്കിയുള്ളതൊക്കെ ഞാനെന്തു ചെയ്യാം ആപ്ലിക്കേഷനിൽ കേറിയിട്ട് ഞാനൊഴിവാക്കാം അപ്പോൾ അത് നിങ്ങളിങ്ങോട്ട് എത്തിക്കൂല്ലല്ലോ ഒഴിവാക്കിയത് ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ആപ്ലിക്കേഷനിൽ കേറീട്ട് അതൊഴിവാക്കാം കേട്ടോ ബാക്കിയുള്ളത് മാത്രം എത്തിച്ചാൽ മതി ഞാനതിനകത്ത് മെൻഷൻ ചെയ്യാം അതിനകത്ത് ഓക്കെ ഓക്കേ എന്നാൽ